ആ ഓക്കേ ഇൻഷുറൻസിൻ്റെ ആ ആ ഞാ എന്താ ഒന്നൂടി പറയൂ പത്തേതിൻ്റെ ആ

ആണോ ആ ഞാൻ ഒരു ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ചു ഇരിക്കുവായിരുന്നെ

ആണോ അതിൻ്റെ പ്ലാൻ ഒക്കെ ഒന്ന് പറയുമോ ആ ഓ ഓ ആ ഓക്കേ മൊത്തമായിട്ട് ആ ആ ആ ആണല്ലെ നോമിനി ആയിട്ട് പിന്നെ ആരെ അങ്ങനെ ആരെ വെക്കണമെന്ന് ഉണ്ടോ ആരെ വേണേൽ വെക്കാം അല്ലെ ആ

ആറ് മാസമോ പറ്റും അല്ലെ അപ്പോൾ മാസം ഓ അങ്ങനെ ഓ ഓ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മള് ഈ ആറ് മാസം കൂടുമ്പോൾ നമ്മള് അടക്കണം എത്ര അടക്കേണ്ടി വരും ആറ് മാസം ഓ അങ്ങനെ അല്ലെ അതല്ലാണ്ട് നമുക്ക് മാസം മാസം അടക്കാൻ പറ്റുവോ അതാകുമ്പോൾ വേഗം കഴിയുവല്ലോ ഓ അടയ്ക്കാം അല്ലെ ആ മതി ആ ഓക്കേ ഓക്കേ പിന്നെ ഇത് ഇത് ചേരാൻ എന്തൊക്കെ കൊടുക്കേണ്ടി വരും അതിനല്ലെ ആ ആ പിന്നെ വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ചാൽ മതിയോ ഇതിൻ്റെ കോപ്പിയൊക്കെ